ഇപ്പോൾ ഗ്രാമപ്രദേശത്തിലുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ധനസഹായം ഒന്നും കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല ഇപ്പോൾ ചില എല്ലാവരും ചിലപ്പം ലോൺ എടുത്തിട്ട് കട കടത്തിന് മുകളിൽ കടം ആയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ധനസഹായവും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ മാത്രമേ അവർക്ക് ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ അപ്പോൾ ധനസഹായം എടുത്തുകഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അടച്ചുതീർക്കണം എന്ന് ഒരു നോട്ടീസ് അങ്ങ് അവർ അയയ്ക്കും ഇത് നമുക്ക് ഇപ്പോൾ ഒരു ധനസഹായം കിട്ടുന്നത് തന്നെ ഒരു കൃഷി ഉല്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് ഒരു നാ എട്ട് മാസം എങ്ങനെയും മിനിമം എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു വാഴക്കൃഷി വെച്ചുകഴിഞ്ഞാൽ എട്ടുമാസം മിനിമം എന്തായാലും അത് കുലച്ച് വരാൻ വേണ്ടിയിട്ടെടുക്കും ആ സമയം ഒരു അഞ്ചുമാസത്തിനുള്ളിൽ ഇവർ പറയും എല്ലാ കുടിശ്ശികയെല്ലാം അടച്ചുതീർക്കണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കർഷകർ ബുദ്ധിമുട്ടി പോകും കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കടക്കെണിയിലായിട്ടുള്ള കർഷകർ ആത്മഹത്യ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചെറുത് ചെറുകിട കർഷകർക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ഈ കാലാവസ്ഥ മാറ്റം ഒക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തൊരു ടൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വാഴ നനയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നടക്കില്ല ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നവർക്ക് തന്നെ വേ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാകുള്ളൂ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം വെള്ളം ഇല്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പുഴയിൽ നിന്നൊക്കെ പുഴയെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളാദ്യം പുഴയിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് വെള്ളം നിറച്ചുകൊണ്ടിരുന്നത് ഈ വയലുകളിലേക്കൊക്കെ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുഴയിൽ നിന്ന് പോലും നമുക്ക് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇപ്പം കുടിക്കുന്നത് വരെ പുഴയിൽ നിന്നാണ് അപ്പോൾ പല പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും